ഞാൻ ഇതുപോലെയുള്ള വർക്കൗട്ടുകൾ പരീക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷിക്കാറുണ്ട് അല്ലാതെ തന്നെ രാവിലെയോ വൈകുന്നേരവും ഇതുപോലെ വനത്തിൽ കൂടിയോ അല്ലെങ്കിൽ കുന്നിൽ കൂടിയോ അല്ലെങ്കിൽ റോഡിൽ കൂടിയോ ഒക്കെ കുറേ ദൂരങ്ങൾ നടക്കാറുണ്ട് ഞാനും എൻ്റെ ഫാമിലിയും നമ്മൾ രാവിലെ കുറെ ദൂരം നടക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പുകൾ ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാനും ഷുഗർ പോലെയുള്ള രോഗികൾക്ക് അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെയുള്ള നടത്തത്തിൽ കൂടി നമ്മൾ നടത്തത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ രാവിലെയൊക്കെ ഇതുപോലെ പോവുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ അവരെ പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാനും എല്ലാം നമുക്ക് സാധിക്കും നമ്മളെ മക്കളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ നമുക്ക് അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കാണാത്ത പല കാഴ്ചകൾ കാണാനും എല്ലാം സാധിക്കും അവർക്ക് വനത്തിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് അവർ ഇതുവരെ കാണാത്ത പല മരങ്ങൾ കാണാനും ആ മരത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അതിനെ പറ്റി പഠിക്കാനും അതുപോലെ ഈ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഹട്ടു പോലെയുള്ള വീടുകൾ കാണാനും അത് അവിടെ താമസിക്കാൻ ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയാണ് അത് കുട്ടികൾക്കും നമുക്കും മനസ്സിനും നല്ല സന്തോഷവും കുളിർമയും നൽകുന്ന ഒരു ഇതാണ് അതുകൂടെ നമ്മൾ ഇതുപോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജിമ്മു പോലെയുള്ള ഫിറ്റ്നസ് സെൻ്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല